സ്ത്രീകൾ ഇന്ന് പഴയതുപോലെയല്ല പഴയ കാലത്ത് സ്ത്രീകളെ പോലെ വീട്ടിൽ ഒതുങ്ങി കൂടാതെ സ്ത്രീകളിന്ന് പല സ്ത്രീകളും മുന്നോട്ടുവന്ന് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ കേന്ദ്രസർക്കാർ സ്ത്രീകൾക്ക് മാത്രമായി പലതരത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ കുടുംബശ്രീ പോലെയുള്ള പരിപാടികളിൽ ലോൺ സഹായങ്ങളും പലതും ഇന്ന് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് സ്ത്രീകൾ കുടുംബശ്രീ പോലെയുള്ള പദ്ധതിയിലൂടെ അവർ പലതരത്തിലുള്ള ബേക്കറി സാധനങ്ങളും അതുപോലെയൊക്കെ കൃഷിയും കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇന്ന് വാ വാങ്ങിക്കാൻ പോലും ജനങ്ങൾ ഇന്ന് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട് കാരണമെല്ലാവർക്കും വളം ഇടാത്ത നല്ല രീതിയിലുള്ള നാടൻ വളങ്ങൾ ഉപയോഗിച്ച് രാസവളങ്ങൾ ഉപയോഗിക്കാത്ത നല്ല രീതിയിലുള്ള പച്ചക്കറികൾ വാങ്ങിക്കാൻ പല ആളുകളും മുന്നോട്ടേക്ക് വരുന്നുണ്ട് സ്ത്രീകൾ അതുപോലെ സ്ത്രീകൾക്ക് ഉച്ചഭക്ഷണങ്ങളും അതുപോലെ രാവിലത്തെ ഭക്ഷണങ്ങൾ ആയാലും എല്ലാം ചെറിയ പൈസക്ക് സ്ത്രീകൾ ഇന്ന് അവരെ ഒരു കൂട്ടായ്മ പോലെ ചെയ്തിട്ട് അത് ചെറിയ പൈസക്ക് അവരത് വിൽപന നടത്തുന്നുണ്ട് അതിനൊക്കെ നമ്മളെ ഗവൺമെന്റും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും അവർക്കായി പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇന്ന് നമ്മളെ ഗവൺമെൻറ് സഹായിക്കുന്നുമുണ്ട് അവർ ചെറിയ വ്യവസായങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആയാലും എല്ലാത്തിനും വേണ്ടുന്ന സഹായങ്ങൾ നമ്മളെ ഗവൺമെൻറ് ഇന്ന് നൽകുന്നുണ്ട്